ഞങ്ങളുടെ പ്രദേശത്തെ രാജാവാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി പഴശ്ശിരാജയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് വേണ്ടി താൻതെരുവ് എന്നുപറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻറെ ഒരു കോളേജ് നിർമിച്ചിട്ടുണ്ട് പഴശ്ശിരാജാ കോളേജ് എന്നാണ് അതിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ശവകുടീരം വണ്ടി കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു വച്ചിട്ടൊരു വലിയ പാർക്കുതന്നെയാണത് നിറയെ ഗാർഡനും എല്ലാം മൊത്തത്തില് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്ററ് പ്ലേസ് ആണ് ആൾക്കാരൊക്കെ ഒരുപാട് വന്നുകാണുന്നൊരു സ്ഥലമാണത് എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ്